ഹലോ എയര് ഇന്ത്യ എക്സ്പ്രസ് അല്ലേ അപ്പോള് ഞാന് വിളിച്ചതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മകള് മകളെന്ന് പറയുമ്പോള് ഒരു പതിനാറ് വയസ്സൊക്കെയെയായിട്ടുള്ളൂ പതിനാറ് പതിനഞ്ച് പതിനാറ് വയസ്സ് അ പ്രായം അപ്പോള് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാണ് ഇപ്പം ഞാനും എൻ്റെ വൈഫും ഓൾറെഡി ഇവിടെ അബ്രോഡാണുള്ളത് ഗൾഫില് ഓൾറെഡി ദുബായില് സെറ്റിൽഡ് ആണ് അപ്പോള് അവള് വെക്കേഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഞങ്ങൾക്കിവിടെ വർക്കുള്ളത് കാരണം വരാൻ പറ്റിയിട്ടില്ല അപ്പോള് തിരിച്ചുവരുമ്പോള് ഷീ ഈസ് എലോൺ ഒറ്റയ്ക്കാണ് വരുന്നത് അപ്പോള് അവളെ ടേക്ക് കെയര് ചെയ്യാന് അവളുടെ യാത്ര കംഫേർട്ടാക്കാന് അപ്പോള് അവളുടെ സേഫ്റ്റി അതെല്ലാം നിങ്ങള് ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാമല്ലോ ങേ ഒറ്റയ്ക്ക് വരികയെന്ന് പറഞ്ഞാല് അതും ഇത്രയും ദൂരം അതും ഷീ ഈസ് നോട്ട് അന് അഡല്റ്റ് അങ്ങനെ ഒരു അഡോളസെന്റ് ആണ് പ്രായപൂർത്തിയായിട്ടില്ല അപ്പോള് തീര്ച്ചയായിട്ടും റിസ്ക്കാണ് പക്ഷെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഒപ്പം കൊണ്ടുവരാൻ വേറെയാളെ ഏൽപ്പിക്കാനോ അല്ലെങ്കില് ഞങ്ങളുടെ കുടുംബത്തില് നിന്ന് വരുന്നവരോ അങ്ങനെയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടിവന്നത് അപ്പോള് നിങ്ങള് യാത്രയിലുടനീളം നല്ല രീതിയില് തന്നെ നോക്കണം സേഫായിട്ട് നിങ്ങള് എയർപോർട്ടിൽ എത്തിച്ചുതരണം നമ്മള് നമ്മളവിടെത്തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോള് ആ ഒരു വിഷയം നിങ്ങള് ശ്രദ്ധിക്കണം കാരണം മക്കളുടെ വിഷയമാണ് നമുക്കറിയാം എന്തും സംഭവിക്കാം നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്കൊന്നും അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല അപ്പോള് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ബന്ധപ്പെട്ടത് അപ്പോള് നിങ്ങളത് ശരിയാക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യൂ